ഈ ഐ ഐ ടി ഐ ഐ ഐ എസ് സി ഐ ഐ എം തുടങ്ങിയവ എല്ലാവർക്കും അങ്ങനെ താങ്ങാൻ കഴിയണതല്ല ഒരാവറേജ് സ്റ്റുഡൻറ്റിനൊന്തൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല അപ്പം ബ്രില്ലിയൻറ്റ് സ്റ്റുഡൻസിനക്കെ ഇത് താങ്ങാൻ കഴിവു താങ്ങാൻ കഴിയുക ഉള്ളു പിന്നെ കൂടുതൽ വർക്ക് ലോഡൊക്കെ ഉള്ളത് കൊണ്ട്തന്നെ ഇതൊന്നും ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല ബ്രില്ല്യൻറ്റായ സ്റ്റുഡൻസിനിതൊന്നൊരു പ്രശ്നമല്ലാത്ത സ്റ്റുഡൻസിന് താങ്ങാൻ കഴിയുന്നതാണ് പിന്നെ ഇത് ഒക്കെ പഠിച്ചാൽ നമുക്ക് കുറെ അധികം ജോലി സാധ്യത നമ്മുടെ മുന്നിലുണ്ട് ഇത് പഠിക്കണൊക്കെ നല്ലതിനാണ് പക്ഷേ നമുക്ക് താങ്ങാൻ കഴിയണം താങ്ങാൻ കഴിയാത്തെടുത്തിട്ട് കാര്യം ഇല്ലല്ലൊ ഒരാവറേജ് സ്റ്റുഡൻസാണ് ഒരു മീഡിയം ലെവലിലിപ്പം പരീക്ഷേന്ന് തലേന്ന് പഠിക്കുന്ന കുട്ടിയെകാണൊ ഒന്നു വർക്ക് ലോഡുകളൊന്നും താങ്ങാൻ കഴിയില്ല പഠനം മാത്രം അങ്ങനെ കുട്ടികൾക്കൊന്നും തീരേം കഴിയില്ല നമുക്ക് കൂടുതൽ വർക്ക് ലോഡുകളൊ എല്ലാം നമുക്ക് കൊണ്ട് പോവാൻ കഴിയാണെങ്കിൽ മാത്രം എടുക്കാൻ കഴിയുന്ന എടുക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രില്ല്യൻറ്റ് സ്റ്റുഡൻസ്ന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും ഒരുപ്രശ്നമല്ല വർക്ക് ലോഡാണെ വർക്ക് ലോഡ് പഠിക്കാനാണെ പഠിക്കണം എന്ത് കാര്യത്തിനും അവർക്കൊരു പ്രശ്നമല്ലാത്ത കുറെ കുട്ടികളിണ്ടാവില്ലെ അവർക്കൊന്നും ഇത് പ്രശ്നം പക്ഷേ ഇതെടുത്താൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറെ ജോലി സാധ്യതകലുണ്ട് ജോലി സാധ്യത കണ്ട്ച്ചാ ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസക്കെ ഇതെടുത്താൽ മുന്നോട്ട് പോവാനും കഴിയില്ല ജോലി സാധ്യത കണ്ട് മാത്രം എടുത്തിട്ട് കാര്യല്ലൊ നമുക്ക് താങ്ങാൻ കഴിയും മേണ്ടെ ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് ഒരു ബ്രില്ല്യൻറ്റ് സ്റ്റുഡൻസിന് മാത്രമാണ് എടുക്കാൻ കഴിയുവുള്ളന്നാണ് എടുത്താത്തന്നെ നല്ല കാര്യം കുറെ അധികം ജോലി സാധ്യതകളുണ്ട് കുറെ അധികം ശമ്പളം നമുക്ക് കിട്ടുന്ന കുറെ ജോലി സാധ്യതകളുണ്ട് ഇതക്കാണ് നല്ലതാണ് ഒ എടുക്കുമ്പോൾ ഒന്നും കൂടി ആലോചിസിച്ചെടുക്കുക എങ്ങനെ നമുക്ക് താങ്ങാൻ കഴിയുവൊ കഴിയുവോന്നൊക്കെ ന നോക്കി എടുക്കുക ഒരാൾക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാൻ കുറേയധികം വർക്ക് ലോഡുണ്ട് ഇതിന് ഇപ്പം നമ്മൾ കയിയാണെങ്കിൽ മാത്രം ഒരിക്കലും ഒരു ബിലോ ആവറേജ് ആവറേജ് സ്റ്റുഡൻസിനൊന്നും ഇത് പ്രിഫറ് ചെയ്യൂല അവർക്കിത് താങ്ങൂലാന്ന് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് താങ്ങൂലാന്ന് ബ്രില്ല്യൻറ്റ് സ്റ്റുഡൻസിനന്നെ താങ്ങാൻ അവർ തന്നെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് മറ്റുള്ളവരുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചൂടെ എത്രത്തോളം ഉണ്ടാവുമെന്ന്